ഹലോ ഇത് മനൂ ഹോട്ടലല്ലെ എനിക്ക് ഭക്ഷണം ഓഡര് ചെയ്യാനായിട്ടായിരുന്നു എനിക്ക് ഒരു നാല് സെറ്റ് ചപ്പാത്തിയും ഒരു വെജ് കുറുമക്കറിയും ഓഡര് ചെയ്യാനായിരുന്നു അപ്പോള് നിങ്ങള്ക്ക് എത്ര നേരമെടുക്കും ഡെലിവറി ചെയ്യാനും ഡെലിവറി അഡ്രസ്സിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ ചാർജ്ജെന്തേലുമുണ്ടോ അങ്ങനെന്തേലും എക്സ്ട്രാ ഫീസോ അതോ ഈ മെനുവിലുള്ള റേറ്റ് തന്നെ ആവാത്തുള്ളോ എന്ന് ഒന്നറിയണമെന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണ്ടത് കറി അയക്കുമ്പോൾ വെജ് കറി തന്നെ അയക്കണം കാരണം ഞാനൊരു വെജിറ്റേറിയനാണ് അപ്പോൾ നോൺ വെജ് കഴിക്കാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് സോ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു പിന്നെ ഞാൻ കണ്ടു കണ്ടിരുന്നു ഒരു പരസ്യം കണ്ടിരുന്നു നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓഡര് ചെയ്താൽ ഇത്ര ശതമാനം ഡിസ്ക്കൗണ്ട് കിട്ടുമെന്ന് അപ്പോള് അതിൻ്റെ എന്തേലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക ഇത് എത്ര നേരം കൊണ്ട് ഡെലിവറി ആകും ഞാൻ നിങ്ങളുടെ ഹോട്ടലിനെ കുറിച്ച് നല്ല നല്ലെ റിവ്യൂസാണ് കേട്ടിട്ടുള്ളത് നല്ല ഫുഡ്ഡാണ് നല്ലെ നീറ്റ്നെസ്സാണ് അങ്ങനെ പറഞ്ഞ് നല്ലെ കേട്ടിട്ടുണ്ട് അപ്പോള് നല്ലെ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് എത്ര നേരത്തിനുള്ളിൽ ഡെലിവറി ചെയ്യാന് പറ്റും എന്നറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാം പിന്നെ ഇത്ര ദൂരം വരുമ്പോൾ എക്സ്ട്രാ ഫീസ്സോ എക്സ്ട്രാ ഡെലിവറി ചാർജസ്സോ അങ്ങനെ എന്തെങ്കിലും വരുമോ അതോ ടെ എക്സ്ട്രാ ചാർജസ്സൊന്നും ഇല്ലാണ്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊരു ഡിസ്കൗണ്ടുംകൂടിച്ചേർത്ത് കിട്ടുമോ ഇതൊന്നറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാം എന്റെ ഓഡര് റിപ്പീറ്റ് ചെയ്യാനായിട്ടാരുന്നു നാല് ചപ്പാത്തിയും ഒര് വെജ് കുറുമാ കറിയും മാത്രം മതി പിന്നെ ഇത് നിങ്ങൾക്ക് ഡെയിലി ഡെലിവറി ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇതേ സമയത്ത് എല്ലാ ദിവസവും ഇതേ സാധനം ഓഡര് ഡെലിവർ ചെയ്യണമായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും എന്തേലും ഡിസ്കൗണ്ട്സ് അധികം കിട്ടുമോ അപ്പോൾ അത് ഒന്ന് അറിയണമായിരുന്നു